ഹലോ ഹോട്ടലല്ലേ നമ്മുടെ പുറത്ത് ഭയങ്കര കൊടുങ്കാറ്റും മഴയുമൊക്കെയായിട്ട് ഇരിക്കുകതന്നെയാണ് ഫുഡ് വേണം അതിനു മുമ്പേ ആ ഫുഡൊന്ന് എത്തിച്ചേക്കാമോ അത് ചുണ്ടയെന്ന സ്ഥലത്താണേ ഹൗസ് നമ്പറ് മുന്നൂറ്റിപ്പതിനെട്ട് ഒന്ന് പെട്ടന്ന് വേണേ രാത്രിയിലേക്കുള്ള ഫുഡാണ് ചപ്പാത്തിയോ എന്തെങ്കിലും വെജിറ്റബിൾ കറിയോ മതിയാവും ഭയങ്കര ഭയങ്കരമായ മഴയും കാറ്റുമൊക്കെ ഉണ്ട് അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല പെട്ടെന്നൊന്ന് എത്തിച്ചു തരാൻ പറ്റുമോ വളരെ ഉപകാരമായിരിക്കും കേട്ടോ ഒന്ന് പെട്ടെന്നൊന്ന് എത്തിച്ചു തന്നാൽ